ഇപ്പോൾ എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്നതാണ് എൽ പി ജി സിലിണ്ടർ പണ്ട് അടുപ്പേനു യൂസ് ചെയ്തിരുന്നു ഇപ്പം അതിൻ്റെ പകരം എല്ലാവരും എൽ പി ജി സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് ചെയ്തു ചെയ്യണ കൊണ്ട് ഈസിയായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് കുറേ കാര്യങ്ങള് അത് പേടിക്കുക അല്ലാതെ ഈ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ എന്താണ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ കുറേ മുൻകരുതലുക ൾ എടുക്കണം അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതിലൊന്നാമത്തെ എനിക്ക് പറയാനുള്ളത് സിലിണ്ടറിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു വയറുണ്ട് ആ വയറിനെ എപ്പോഴും ചെക്ക് ചെയ്യുക അത് എന്തെങ്കിലും ലീക്ക് ഉണ്ടോന്നോ ഹോള് വന്ന്ക്കണോന്നോ എന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഭയങ്കര അപകടമായിട്ട് മാറും അപ്പം അത് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സിലിണ്ടറിക്ക് ആളെക്കൊണ്ട് ചെയ്യിക്കുക അല്ലാതെ സ്വയം അത് ചെയ്തു പ്രോപ്പറായ പ്രോപ്പറാവാതെ വയ്ക്കുക ആണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ അപകടത്തിൽ ചെന്നു പെടും അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ത് കണക്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെക്കൊണ്ട് ചെയ്യിക്കുക പിന്നെ എന്താണ് ഈ ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന ആ ഒരു ഏരിയ നല്ല ശ്രദ്ധിക്കണം കാരണം അവിടെ ഒന്നും ഇലക്ട്രിക്ക് ആയിട്ടുള്ള ഒരു ഒരേ ഒരു സാധനം പാടില്ല കാരണം ഇലക്ട്രിക്കിന്റെ അവിടെ വച്ചു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടൊക്കെ വരുമ്പോൾ ഉള്ള ആകെ പ്രശ്നമാകും അപ്പം ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന സ്പേസിന്റെ ഏരിയ നല്ലോണം നോക്കണം പിന്നെ ആണെങ്കിൽ ഗ്യാസിന് അടുത്ത് ഒരിക്കലും ഫോണ് ഇലക്ട്രിക്ക് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻസും യൂസ് ചെയ്യാതെ അതൊക്കെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഗ്യാസ് ഗ്യാസ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ശോളൊക്കെ യൂസ് ചെയ്യും ശോളൊക്കെ അവിടെ പോവുക അതിൻ്റെ അടുത്ത് ഇല്ലാതിരിക്കുക തീ കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി അഥവാ തീ കത്തിപ്പിടിക്കുക ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം